ഹാലോ നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു നിങ്ങളുടെ ഏജൻസി ആയി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ അഡ്വാൻസായിട്ട് നമ്മളൊരു അഞ്ഞൂറ് രൂപ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ആ സ്ഥലത്തോട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ കൂടെ വരാൻ ഇരുന്ന യാത്രക്കാരൻ വരാൻ താമസിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ അഡ്വാൻസ് തുക നമുക്ക് തിരികെ കിട്ടണം അഞ്ഞൂറ് രൂപയായിരുന്നു നമ്മൾ അഡ്വാൻസ് തന്നത് ആ പൈസ നമുക്ക് തിരികെ കിട്ടണം അപ്പം അതിന് വേണ്ടി നിങ്ങള് എത്രയും പെട്ടെന്ന് നമ്മൾ അയച്ച് തന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തിരികെ തരികയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് കാരണം നമുക്കെന്തായാലും ഇനിയിപ്പോൾ ക്യാബിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്തായാലും ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരികെ വിളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ആ തുക ആ അഡ്വാൻസ് തുക അഞ്ഞൂറ് രൂപ എത്രയും പെട്ടെന്ന് നമ്മൾ അയച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു